ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഫാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങീട്ട് വാങ്ങിയത് അപ്പോൾ പക്ഷേ അതിൻ്റെ പൈസയ്ക്ക് പറ്റിയ ആ ഒരു പെർഫോം അത് ചെയ്യണില്ല ആരും അതിൽ എംടെക് എന്ന് പറയുന്ന കമ്പനിയാണ് ആ ഫാനിൻ്റെ കമ്പനി ആരു അത് ഇനി വാങ്ങരുത് എൻ്റെ ഒരു അപേക്ഷയാണ് ഇപ്പം ഭയങ്കര സൗണ്ടാണ് ഫാനിടുമ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റണില്ല പിള്ളേരാരുന്നാലും ഉറങ്ങണില്ല